ഹലോ ടീച്ചറേ ഞാനിത് പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത് മനസിലായോ ആ ഒന്നുമില്ല വെറുതേ വിളിച്ചതാണ് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു ഒരു വർഷം ആവാനായില്ലേ സ്കൂളിനെ പറ്റിയും ക്ലാസ്സിനെ പറ്റിയിട്ടുമുള്ള എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വിളിച്ചതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ടീച്ചർക്ക് അത് ശരി ആ

ആ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ നല്ല കുട്ടികളാണോ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ ആ ഡോറൊക്കെ അടക്കുന്നില്ലേ ഡോറിനോ ജനലിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതെ അല്ലേ ആ ആ അത് ശരി ആ ആ അത് ശരി ആ അതിപ്പോൾ ഓരോ ക്ലാസിൻ്റെയും സൗകര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്ത് വരുന്നതെയുള്ളൂ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാം ഞാൻ ശ്രമിക്കാം വെള്ളത്തിൻ്റെ കാര്യമോ വെള്ളത്തിൻ്റെ ശരി അപ്പോൾ ഇതൊക്കെ ശരിയാക്കാം കേട്ടോ ആ ശരി ഓക്